ചേട്ടാ എന്താണ് കണ്ടിട്ട് കുറെ ആയല്ലോ ആന്നെ നമ്മള് പുറത്തല്ലേ പണി അങ്ങനെയല്ലേ പിന്നെ നമുക്കൊരു വീട് വേണമല്ലോ നമുക്ക് പഴയ മോഡൽ വീടാ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ നാലുകെട്ടൊക്കെ പോലത്തെ ആ നമുക്കൊരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഇപ്പങ്ങട് ഇപ്പോൾ എടുക്കാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെങ്ങനെയാ വേണ്ടത് വെച്ചാൽ ഒന്നു പറഞ്ഞു തന്നാൽ

നമ്മൾ ഉദ്ദേശിക്കണതെന്നു വെച്ചു കഴിഞ്ഞാൽ ഈ പഴയ തറവാട് പോലത്തെ വീടാ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ ഈ മറ്റേ നടുത്തളം ഒക്കെയുള്ള ഈ മറ്റേ നടുവിലൊക്കെ വെള്ളം വന്നു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വീഴണ സെറ്റപ്പ് ഒക്കെയില്ലേ ആ ഇപ്പം നമ്മൾ രണ്ടു നില തന്നെയാണ് ഉദ്ദേശിക്കണേ മുകളിൽ രണ്ടു നില പറയുമ്പോൾ രണ്ടു നിലയിലും താമസം പിന്നെ മുകളിൽ മച്ചു വരുന്ന രീതിയിൽ ആ അങ്ങനെയാണ് ഉദ്ദേശിക്കണേ അപ്പോൾ താഴത്തെ നിലയിൽ രണ്ട് ഒരു മൂന്നു ബെഡ് റൂമും ഒരു സിറ്റ്ഔട്ട് ഒരു ഹോള് ആ നടുത്തളം താഴെത്തന്നെ സിറ്റ്ഔട്ട് കിച്ചൺ വർക്ക് ഏരിയ പിന്നേ വീടിനോടു ചേർന്നിട്ട് പാർക്കിംഗ് പറ്റൂല്ലാന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് വേറെ സെപ്പറേറ്റ് ആയാലും കുഴപ്പല്ല്യാട്ടോ കിഴക്കോട്ട് നോക്കി നിക്കണ രീതിയിലാണ് വീട് നമുക്ക് ഫ്രണ്ട് ഏരിയ വേണ്ടത് ആ സൈറ്റ് നമ്മുടെ ഇവിടെത്തന്നേയ് ആ പാടത്തിൻ്റെ പ്പുറത്തുള്ള സ്ഥലം തന്നെയാ നമ്മളുദ്ദേശിക്കണത് അവിടെ നിന്നാൽ കിഴക്കോട്ട് നോക്കിയിട്ട് പണിയാമല്ലോ കുഴപ്പമില്ലല്ലോ വഴിയും കറക്റ്റ് ആണ് ആ ആ അതു കഴിഞ്ഞിട്ടിപ്പം മുകളിലത്തെ നിലെയെന്നു പറയുമ്പോൾ രണ്ടു ബെഡ് റൂമും പിന്നേ മുകളിൽ ചെറിയൊരു ഈ നമ്മുടെ വരാന്ത പോലെ ചെറിയൊരു സെറ്റപ്പും പിന്നെ കുറച്ച് ഹോളിൻ്റെ നേരെ മേലെയായിട്ട് കുറച്ച് അതിൻ്റെ ഒരു രീതിയിൽത്തന്നെ ഒരു ചെറിയ ഹോൾ പോലെ സംസാരിക്കാൻ അതായത് ഓപ്പണായിട്ടുള്ള രീതിയിലുള്ള ഒരു ഹോളെ സിറ്റൗട്ട് പോലെ അതിൻ്റെ മുകളിൽ തന്നെ പിന്നെ നമുക്ക് ഈ നമ്മുടെ തുറ തുറന്നിട്ട സ്ഥന സ്ഥലം പോലെ ചെയ്യാൻ പറ്റില്ലേ നമുക്ക് റൂമൊക്കെ ക്ലോസ്ഡ് ആയിട്ട് ഗ്യാപ് വന്നിട്ട് ചെറിയ വരാന്ത പോലെത്തന്നെ അടിയിൽ വരാന്ത പോല തന്നെ മുകളിലേക്കും ചെയ്യാൻ പറ്റുമോ ആ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മറ്റേ ഷീ ഈ ഗ്രില്ലിടണ്ട പിന്നെ മറ്റേ ഇതു ചെയ്യാൻ പറ്റില്ലേ നമുക്ക് മരത്തിൻ്റെ തന്നെ കൊത്തു പണിയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അതിൻ്റെ ഗ്യാപ് അതായത് അത്ര അടുപ്പിച്ചിട്ടല്ലെങ്കിലും ചെറിയ ഗ്യാപ് വരുന്ന രീതിയിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാമല്ലോ അല്ലേ നമുക്ക് മരത്തില് കൂടുതൽ ചെയ്യാം ഏ പിന്നെ വന്നിട്ട് അതിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ടു മൂന്നു മാസത്തിനുള്ളിൽ വർക്ക് തീരാൻ പറ്റുമോ ഇപ്പോൾ നമുക്കതിന് ഏകദേശം ഇപ്പം എത്ര ലോഡ് കല്ലും സിമെൻറും ഒക്കെ വേണ്ടി വരും ആ ആ അപ്പം അതിൻ്റെ പ്ലാന് നമുക്കെന്നാ ഒന്ന് കാണാൻ പറ്റുക അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ബഡ്ജറ്റ് വരും എണ്ണൂറ് എണ്ണൂറ് ആ ഓക്കെ ആ അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ അമ്പത് അറുപതെന്നിപ്പോൾ പറഞ്ഞാലും ഇപ്പോൾ പണിതു വരുമ്പോൾ ഏകദേശം ഒരു ഒന്നിൻ്റടുത്തു വരും അല്ലേ

ആ ഇപ്പം മറ്റേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ പുതിയതു തന്നെ വെക്കാം എല്ലാ സെറ്റപ്പ് ആക്കി പുതിയ സാധനങ്ങളിപ്പം ബാത്ത് റൂം ഫിറ്റിങ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ പുതിയ സാധനം തന്നെ വെക്കാം വീടിന് പക്ഷെ നമുക്ക് പുറത്തുനിന്നു നോക്കുമ്പോൾ ഒരു പഴമ ലുക്ക് കിട്ടണ രീതീലത്തെ ഇതു മതീട്ടോ അപ്പോൾ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാമല്ലേ ആ നമ്മളിപ്പം ഇതിന് നിങ്ങളുടെയൊപ്പം നിൽക്കേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ ഇപ്പോൾ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഞാൻ രണ്ടുമാസം കഴി ഒരു ഒരു രണ്ടു മാസമില്ല ഒരു മാസത്തി താഴേ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് ലീവ് കഴിയും അപ്പം വീണ്ടും നമ്മൾ ഇവിടേക്ക് യുഎസിലേക്ക് തിരിച്ചു പോകും അപ്പോൾ ഞാനൊരു ആറു മാസം കഴിയുമ്പോഴേക്കും ഇപ്പം എനിക്ക് ലീവ് ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഫണ്ടെന്നൊക്കെ ഫണ്ടൊക്കെ കറക്റ്റ് ടൈമിൽ വരും അ അതു കഴിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് വീട് വീടിരിക്കാനുള്ള പരിപാടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു ആറ് ആറുമാസം അല്ലെങ്കിൽ ഏഴു മാസത്തിനുള്ളിൽ ആ ആ ആ ശരി ഓക്കെ അപ്പം എന്നാൽ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്ലാനിൽ ഒന്നിരിക്കാം അപ്പോൾ എന്തായാലും ഈയൊരു മാസത്തിൽ നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്താൽ പോണതിനു മുമ്പൊന്നു ഫൈനലൈസ് ആക്കാൻ പറ്റിയാൽ ഉപകാരമായി കുറ്റി ഇടീലും കാര്യങ്ങളും അപ്പം എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞു കാണാം